ഇപ്പൊൾ എൻ്റെ തോട്ടത്തിൽ ഉണ്ടാകുന്ന പൂക്കള് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഈ ഓണം പോലുള്ള സെലിബ്രേഷൻ ടൈം ഒക്കെ ആണെങ്കിൽ ഞാൻ അത് എന്താ പറയുക പൂക്കളംപോലുള്ള ഇതൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂവ് പറിക്കുകയും അത് പൂക്കളത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അതെ സമയത്ത് പഴങ്ങളൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വച്ചുകഴിഞ്ഞാൽ കൂടുതലായിട്ടും വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ആയിട്ടൊക്കെ നമ്മളത് പറിച്ചുകൊടുക്കും പിന്നെ നമ്മളും അത്യാവശ്യം നന്നായിട് തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും അപ്പൊൾ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ കുറച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനൊക്കെ ചെയ്യും പിന്നെ എന്താ പറയുക പുറത്ത് നിന്ന് വല്ല അതിഥികളോ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ അവർക്കും നമ്മള് എന്താ പറയുക തോട്ടത്തിന്ന് പറിച്ച് അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് അങ്ങനൊക്കെ ചെയ്യാം പിന്നെ കൂടുതലായിട്ട് എന്താപറയുക ഫ്രൂട്ട്സൊക്കെ നമ്മള് പുറത്തുന്നു മേടിക്കാണ്ട് വീട്ടിൽ തന്നെ ഇതാക്കുന്നതാണ് നല്ലത് പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് എന്നു പറയുമ്പോൾ നമ്മള് പച്ചയൊക്കെയാണെങ്കിൽ എന്താ പറയുക മാങ്ങ പോലുള്ളതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മളടുത്ത് കണ്ടുവരുന്നത് അപ്പോൾ മാങ്ങയൊക്കെ ഒരു മീഡിയം പരുവം ആകുമ്പോൾ തന്നെ നമ്മളത് പറിച് ഉപ്പ് മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനൊക്കെയാണ് ഞാൻ സാധാരണ പൂക്കളും പഴങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്